ഇത് മൈ ജി മൊബൈൽസല്ലേ ചേട്ടാ എനിക്ക് ഒരു ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോണ് വാങ്ങനായിരുന്നു

ബഡ്ജറ്റെനിക്കൊരു വലിയ ഇഷ്യു അല്ല എനിക്ക് കുറച്ച് നല്ല ലേറ്റസ്റ്റ് അത്യാവശ്യം അഡ്വാൻസ്ഡായിട്ടുള്ളൊരു ഫോണെടുക്കാൻ വാങ്ങാന്നുള്ളതാണ് ആ ആ ആ ആ ആ എങ്ങനെയാണ് റേറ്റ് വരുന്നതിൻ്റെ

ആ ആ ആ ആ

എത്ര ഡൗൺ പേയ്മെൻറ്റായിട്ടടക്കണ്ടി വരുക അങ്ങനെ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രാ എടുക്കണെങ്കിൽ

ചെയ്യാല്ലേ വേറേതൊക്കെയാണ് ഓ റെഡ്മി വേണ്ട ഐ ഫോണ് ഐ ഫോണെൻറ്റേലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് അതേപോലെ റെഡ്മി ഞാൻ മുന്നേ മേടിച്ചിരുന്നു റെഡ്മി ഇതേപോലെ ഭയങ്കര ബ്ലോക്ക് വെറും പിന്നെ ഫുള്ളായിറ്റെൻറ്റേന്ന് ഫോണടിച്ച് പോയി അപ്പോൾ എനിക്കതൊരു ഇൻ്ററസ്റ്റില്ല സാംസംഗ് എടുക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഇതേ പോലന്നെ ഐ ക്യുൻ്റെ നിയോ നൈൻ പ്രോ അന്നേരം അവൈലബിളാണോ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു അത് നിങ്ങൾ ആ ആ ചാർജർ നമ്മളെക്സ്ട്രാ പുറത്തായിട്ട് വാങ്ങേണ്ടി വരില്ലേ എനിക്ക് ഈ നമ്മുടെ ട്വൻറ്റി ഫോറിൽ ഒരു ഗ്രേ കളർ വരുന്നില്ലേ ആ കളറാണ് വേണ്ടത് ആ അതന്നെ എത്തിക്കല്ലേ അതുപോലെ എനിക്ക് ഇരുന്നൂറ്റമ്പത്താറ് ജി ബിടെ ആ വേർഷനാണ് വേണ്ടത്ട്ടാ

ഞാൻ ഫുൾ എമൗണ്ടടക്കാന്നുള്ള മൈൻഡിലാണ് എനിക്കൊരു കാർഡോഫറുണ്ടപ്പോൾ അത് വഴി അങ്ങനെ എടുക്കാന്നെച്ചിട്ടായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ആ കാർഡ് വെച്ചിറ്റാക്കാ നിങ്ങളുടെ സ്റ്റോറിലേക്ക് ഇന്നിപ്പോൾ പ്രൊഡക്റ്റില്ലാന്നല്ലേ പറഞ്ഞത് എന്നാൽ പ്രൊഡക്റ്റെത്താ ആ ആ എന്നാൽ ഒരു കാര്യം ചെയ്യ് എനിക്കാ പ്രൊഡക്റ്റ് വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫോണേക്കൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ വരാം ഞാൻ കളക്ട ചെയ്യാനായിട്ട് വരാം നമുക്കെന്തായാലും സാധനം വാങ്ങാൻ അതിനൊരഡ്വാൻസായിട്ട് ഞാനൊരു പതിനായിരം രൂപ ഇടാൻ എനിക്കത് ബില്ലിൽ കാണിച്ചന്നാൽ മതി ബില്ലിൽ ആഡ് ചെയ്തിട്ടാൽ മതി ത്രീ റുപ്പീസായിട്ട് മാറും ഓക്കെ ഓക്കെ ഓക്കെ